നൃത്തം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ എന്താ കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കലയാണ് നൃത്തം നൃത്തം നമ്മൾ എന്താ എല്ലാവരും ചെയ്യാറും ഒക്കെയുണ്ട് പക്ഷേ നമ്മൾ നൃത്തം പഠിച്ച് ചെയ്യുമ്പോൾ കുറച്ചുംകൂടിയും നല്ല മനോഹരമാക്കാൻ നമുക്ക് സാധിക്കും അതുപോലെതന്നെ നൃത്തത്തെക്കുറിച്ച് പറയാൻ ആണെങ്കിൽ കുറെ സവിശേഷതകൾ ഉണ്ട് നാടോടിനൃത്തം മോഹിനിയാട്ടം ഭരതനാട്യം അങ്ങനെ പലതരം പലതരം നൃത്തങ്ങളും എല്ലാം നമുക്ക് നമുക്ക് ചുറ്റും ഇപ്പോൾ കാണുന്നതുണ്ട് ഇപ്പോൾ എന്താ പുറത്തേക്കായാലും ഇപ്പോൾ നമ്മളെ നമ്മുടെ മലയാളികളേക്കാളും കൂടുതലും നൃത്തത്തെ ഇഷ്ടപ്പെടുന്നവരാണ് പുറത്ത് ജീവിക്കുന്നവർ ഇപ്പോൾ ഇപ്പോൾ ടൂർ ആയിട്ടും അങ്ങനെ ഓരോ വിനോദയാത്രയ്ക്കും എല്ലാം ഇവിടേയ്ക്ക് നമ്മുടെ മലയാള നാട്ടിലേയ്ക്ക് ആരെങ്കിലും വന്നാൽ നമ്മുടെ നൃത്തം കാണാൻ അവർ അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട് ആ അത്ര മനോഹരമായ ഒരു കളിയാണ് നമ്മുടെ നൃത്തം ഇപ്പോൾ നൃത്തത്തെക്കുറിച്ച് പറഞ്ഞാലും തീരത്തില്ല നമുക്ക് പറയുന്നതിലുപരി അത് കാണുമ്പോൾ നൃത്തം അത്ര അതിമനോഹരമാണ് പിന്നെ നമ്മുടെ കേരളീയരുടെ ഏറ്റവും രസകരമായ നൃത്തം എന്നുപറയുന്നത് തിരുവാതിരയാണ് തിരുവാതിരയെക്കുറിച്ച് പറയാനാണെങ്കിൽ കുറേ സവിശേഷതകൾ ഉണ്ട് തിരുവാതിര നമ്മൾ കളിക്കുന്നത് രാത്രിയിൽ ഒരു നാളിൽ തിരുവാതിരയെന്ന നാളിൽ രാത്രി എന്താ തിരുവാതിര എന്ന നക്ഷത്രം ആകാശത്ത് കാണുമ്പോൾ നമ്മൾ ഭർത്താക്കന്മാർക്ക് വേണ്ടി നമ്മുടെ ഉറക്കമുളച്ച് നമ്മൾ തിരുവാതിര കളിക്കുന്നതും അത് അത്ര എന്താ പറയുക നമ്മുടെ കേരളീയരുടെ അത്ര ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു സവിശേഷതയും അത്ര മനോഹരമായ ഒരു ഒന്നാണ് എന്താ തിരുവാതിര അത് നമ്മൾ തിരുവാതിര കളിക്കുകയാണെങ്കിൽ എല്ലാവരും സെറ്റ് സാരി എന്നുപറയുന്ന സാരി എല്ലാം ഉടുത്ത് മുല്ലപ്പൂ ചൂടി കണ്ണൊക്കെ നല്ല നീളത്തിൽ എഴുതി ചന്ദനം തൊട്ട് പൊട്ട് തൊട്ട് ഒക്കെ തുളസി കതിരൊക്കെ തൊട്ടാണ് നമ്മൾ തിരുവാതിര കളിക്കുന്നത് പിന്നെ തിരുവാതിരയിലെ പാട്ടിനെക്കുറിച്ച് പറയാനാണെങ്കിൽ അത് നമ്മൾ ഇപ്പോൾ ഈ ഉള്ളപോലെ കരോക്കെ വച്ച് അങ്ങനെയൊന്നുമല്ല നമ്മൾ സ്വന്തം പാടി കളിക്കുമ്പോൾ അത്ര അതിമനോഹരമായ ഒരു കളിയാണ് തിരുവാതിര പിന്നെ പറയുകയാണെങ്കിൽ തിരുവാതിര അത്ര വൃത്തികേടും അത്ര നമ്മൾ എന്താ പറയുക അത്ര ശുദ്ധിയായിട്ടും കളിക്കുന്നതാണ് തിരുവാതിര ഇപ്പോൾ തിരുവാതിരയെക്കുറിച്ച് വർണ്ണിച്ചാലും തീരില്ല പറഞ്ഞാലും തീരില്ല നമ്മൾ ഇപ്പോൾ പറയുന്നതിലുപരി പറയുന്നതിൽ പറയുന്നതിൽ തിരുവാതിരയെക്കുറിച്ച് പറയുന്നതിൽ ഇത്ര മനോഹരമാണെങ്കിൽ അത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉള്ള മനോഹരം പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യവും ഇല്ല അത്ര അതി മനോഹരമായ ഒന്നാണ് തിരുവാതിര എന്ന് പറയുന്ന ഈ നൃത്തം